നിലവിൽ ഞങ്ങളുടെ പ്രദേശത്തെ ആളുകൾ വായനശാലകൾ ഉപയോഗപ്പെടുത്താറില്ല കാരണം ഇന്ന് ഈ ബുക്ക് സംവിധാനങ്ങളുടെ കടന്നു വരവോടു കൂടി തന്നെ ലൈബ്രറികൾ അതായത് വായനശാലകൾ ഉപയോഗപ്പെടുത്തുന്നത് ക്രമേണ കുറഞ്ഞു വരികയാണ് അതു പോലെ തന്നെ പഠനകാലത്ത് ഞങ്ങൾ ലൈബ്രറിയിൽ എത്രത്തോളം സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ പഠനകാലത്ത് വളരെ കുറച്ച് സമയം മാത്രമാണ് ലൈബ്രറി ഉപയോഗിച്ചിട്ടുള്ളത് കാരണം അതനുസരിച്ച് റഫർ ചെയ്യാനും അതനുസരിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ അതായത് പഠിക്കുന്ന സാധനങ്ങൾ കൂടുതൽ അറിയണമെന്നുള്ളത് കൂടുതൽ അറിയണം എന്ന് ഉള്ളവരാണ് കൂടുതലായിട്ടും ഈ വായനശാലകളും മറ്റും സന്ദർശിക്കുന്നതും വായനശാലയിൽ മറ്റും ബുക്കുകളെടുത്തു വായിക്കുന്നതും എന്നാൽ ഈ ലൈബ്രറിയിൽ നിന്നും എല്ലാം ബുക്കെടുത്ത് വായിക്കാനായിട്ടുള്ള സാഹചര്യവും സമയം എന്താ പഠനകാലത്ത് ഞങ്ങളുടെ സ്കൂളിലും മറ്റുമുണ്ടായിരുന്നില്ല ഏതുതരം പുസ്തകങ്ങളാണ് ഞങ്ങൾ വായിക്കാൻ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് അതായത് ഇപ്പം കൂടുതലായിട്ടും വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് പഠനവുമായി ബന്ധപ്പെട്ട പല കേരള ചരിത്രം പോലെയുള്ള ബുക്കുകളും അതു പോലെ തന്നെ നിരവധി നോവലുകളും ചെറുകഥകളും കവിതാസമാഹാരങ്ങളും ഓരോ ജേർണലുകളും അതുപോലെ തന്നെ ഓരോ എന്താ എൻ്റെ കഥ പോലെയുള്ള ആത്മകഥകളുമാണ് കൂടുതലായിട്ടും വായിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് അന്നും അതായത് കൂ ക്രമേണ ഇപ്പോൾ കൂടുതലായിട്ടും കുറഞ്ഞു വരികയാണ് ലൈബ്രറിയിൽ ഉപയോഗിക്കുന്നത് എങ്കിലും ഈ ബുക്ക് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മളെ ക്രമേണ എന്താ വായനശാലകളിലേക്കുള്ള പോക്ക് തടയുകയാണ് ഒരു തരത്തിൽ ചെയ്തു പോകുന്നത് ആളുകൾ വായനശാല മിക്കവാറും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് കുറഞ്ഞു വരികയാണ് ലൈബ്രറിയുടെ അതായത് വായനശാല ഓരോ പ്രദേശത്തും കുറവ് മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നതും അതായത് ആളുകളുടെ ഉപയോഗം അത്രത്തോളം കുറവാകുന്നതിനുള്ള തെളിവാണ് പിന്നീട് കോളേജ് സ്കൂൾ എന്ന ഇടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും വായനശാലകൾ കണ്ടു വരുന്നത് അതു വെച്ചു നോക്കുമ്പോൾ ആളുകൾ കൂടുതലായിട്ടും സ്കൂൾ കോളേജ് കാലഘട്ടത്തിലായിരിക്കും വായനശാലകൾ കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെടുത്തുന്നത് പിന്നീട് പ്രാദേശികമായിട്ടുള്ള വായനശാലകളിലും മറ്റും കൂടുതലായിട്ടും ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞവരും മറ്റും റഫർ ചെയ്യുന്നതിനും മറ്റുമായിട്ടായിരിക്കും ഈ വായനശാലകളിലേക്ക് എത്തിപ്പെടുന്നത് വായനശാലകളിലും മറ്റും ചെന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നു പറയുന്നത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ നമുക്ക് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ പലതും അതിനകത്ത് കാണില്ല എന്നതുള്ളതാണ് എന്നതാണ് അതു വെച്ചു നോക്കുമ്പോൾ ഈ ബുക്ക് സംവിധാനങ്ങൾ പോയിട്ടുള്ള ഈ ലൈബ്രറി സംവിധാനങ്ങളിലെല്ലാം നിന്ന് നമുക്കേത് ബുക്കും ഡൗൺലോഡ് ചെയ്യാനും എപ്പം വേണമെങ്കിലും വായിക്കാനും ഒക്കെ നമുക്ക് സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അതു വെച്ചു നോക്കുമ്പോൾ ഈ വായനശാലകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ലൈബ്രറികൾ മറ്റും കയറി ഉപയോഗിക്കുന്നതിൽ ഇപ്പോഴുള്ള ആളുകൾ വിരസത പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ ഇന്ന് ലൈബ്രറിയിൽ മറ്റും നമുക്ക് ഒരു വിരൽത്തുമ്പിൽ തന്നെ ലഭിക്കുന്നതാണ് ലൈബ്രറിയിലെ എല്ലാ വിവരങ്ങളും ലൈബ്രറിയിൽ പോകാതെ തന്നെ നമുക്കിവയെല്ലാം കണ്ടെത്താനും അതു പോലെ തന്നെ ഇതുപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നു പറയുന്നത്